അന്യസംസ്ഥാന തൊഴിലാളികളെ നമ്മൾ ഒരിക്കലും മെച്ചപ്പെട്ട തൊഴിലാളികൾ ആക്കേണ്ട ആവശ്യമില്ല എന്താണെന്ന് വച്ചാൽ അവർക്ക് നമ്മൾ മലയാളികളെക്കാളും അധ്വാനിക്കാൻ അധ്വാന ശേഷി കൂടുതൽ ഉള്ളവരാണ് അവർ അവർ മലയാളികൾ ഒരു ദിവസം എടുക്കും മലയാളികൾ നാല് ദിവസം എടുക്കുന്നത് അവർ ഒരു ദിവസം കൊണ്ട എടുക്കും പിന്നെ അവരെ എന്താണ് നന്നാക്കാാനുള്ളത് മെച്ചപ്പെടുത്താാനുള്ളത് അവർ ഏറ്റവും ബെറ്റർ പണിക്കാർ അവർ തന്നെയാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ പിന്നെ കൃഷിപ്പണിയിലായാലും വേറെയുള്ള പണികളിൽ ആയാലും എന്ത് പണിയിലാവട്ടെ അവർ അങ്ങനെയാണ് അവരെ ഇത് മലയാളികളെ വച്ചു നോക്കിയാൽ മലയാളികൾ അവരെ പണി മലയാളികൾ നാല് ദിവസം ചെയ്താലും തീരും അവർ ഒരു ദിവസം എടുക്കുന്നത് മലയാളികൾ നാല് ദിവസം എടുത്താൽ തീരില്ല അങ്ങനെയാണ് അവരെ ഇനി ഒരിക്കലും നന്നാക്കാനുള്ള ഇതൊന്നുമില്ല അവർ തന്നെ നന്നായി കഴിഞ്ഞിട്ടുണ്ട് അവർ നമ്മുടെ നാട്ടിലെ മലയാളികളെ പോലെ അല്ല അവർ അവരെ നാട്ടിൽ ചെന്നാലും അന്യസംസ്ഥാനത്ത് അവർ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് അവർക്ക് കൃഷിയെ കുറിച്ചു നല്ല ബോധമുള്ള ആൾക്കാരാണ് അവർ കൃഷി ചെയ്തു ജീവിക്കുന്ന ആൾക്കാരാണ് ആ കൃഷിപ്പണി എല്ലാം ഒരു കൃഷി ഒരു വിളവ് ഇറക്കിയിട്ടാണ് അവർ രണ്ടാം വിളവ് ഇറക്കാനാകുമ്പോഴത്തേക്ക് കേരളത്തിൽ നിന്ന് അവർ നാട്ടിലേക്ക് പോകുന്നു ഒരു വിളവ് ഇറക്കി കഴിഞ്ഞിട്ട് അവർ കേരളത്തിലേക്ക് വേറെ സംസ്ഥാനങ്ങളിലക്ക് ജോലി തേടി പോരും അത് കഴിഞ്ഞു ആ വിളവ് എടുക്കാൻ സമയാവുമ്പഴേക്ക് പിന്നെ അവർ വീണ്ടും നാട്ടിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ് അവർക്ക് കൃഷിപ്പണിയൊക്കെ അവർ സൂപ്പർ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അവർക്കൊന്നും ഒരു ഇത് ഇല്ല അവർക്ക് നന്നായിട്ട് മികവോടെ ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ് അവർ ഏത് പണിയിലാവട്ടെ കൃഷിപ്പണി എന്നല്ല ഏത് പണിയിലായാലും അവർ അങ്ങനെയൊക്കെ തന്നെയാണ് ഒരു കൽപ്പണിയിലായാലും വീട് പണിയിലായാലും പിന്നെ വേറെ പുറം പുറത്തുള്ള വേറെ എന്ത് പണിയാവട്ടെ അതിലൊക്കെ ഇപ്പോൾ എല്ലാ മേഖലയിലും അവർ എത്തിക്കഴിഞ്ഞു ഒരു മേഖല എന്നല്ല ഒരു മേഖലയിൽ അല്ല രണ്ട് മേഖലയിൽ അല്ല ഇനി ഇപ്പം അവർ ഇറങ്ങിയത് റബ്ബർ ടാപ്പിങ്ങിൽ അവർ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അതും കൂടി അവർ എത്തിക്കഴിഞ്ഞാൽ കഴി ഞ്ഞൂ കഥ അതുപോലെ ഡ്രൈവിങ്ങിന് ഡ്രൈവിങ്ങിനായാലും അവർക്ക് അറിയായിക ഇല്ല പക്ഷെ മലയാളികളേ സംസ്ഥാനത്ത് വന്നിട്ട് അവർ ഡ്രൈവിംഗ ഇല്ലാ എന്നേ ഉള്ളു എന്നാലും കുറേ ആൾക്കാരൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ബൈക്കും കാര്യങ്ങളൊക്കെ ആയിട്ടും അവർ വാങ്ങി ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള അധികം അവർ കൃഷിപ്പണി വേറെയുള്ള തൊഴിലുകളായിട്ടും പിന്നെ അവർക്ക് അതിന് ഒരു പണി മാത്രം പഠിച്ചിട്ടല്ല അവർ ഇങ്ങോട്ട് വരുന്നത് ഒരു വ്യക്തിക്ക് തന്നെ നാലും അഞ്ചും സെപ്പറേറ്റ് പണികൾ അവർക്ക് അറിയാം അറിയുന്നവരാണ് ഇപ്പം അവർ നെല്ല് കൊയ്യുന്ന ആളാണെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ കട്ട എടുക്കാനറിയാം പിന്നെ തോട്ടത്തിൽ പണിയെടുക്കാൻ അയൾക്ക് അറിയാം കൽപ്പണി അയാൾക്ക് അറിയാം പിന്നെ എന്താണ് പറമ്പിലെ കൃഷിപ്പണികൾ അയാൾക്ക് അറിയാം എല്ലാ പണി അറിയാം ഇ ടൈലിൻ്റെത് തേപ്പിൻ്റെത് അങ്ങനെയുള്ള പല മേഖലകളിൽ അവർക്ക് എല്ലാം തെളിയിച്ചിട്ടാണ് അവർ കേരളത്തിലേക്ക് വരാൻ തുടങ്ങുന്നത് അല്ലാതെ അല്ല ഈ പിന്നെ ഇപ്പോൾ പിന്നെ ഒരു വാർക്കപ്പണിക്ക് പോകുന്ന ഒരു തൊഴിൽ അന്യസംസ്ഥാന തൊഴിലാളിയാണ് ആ തൊഴിലാളിക്ക് ആ വീടിൻ്റെ പ്ലംബിംഗ് പണി അറിയാൻ കഴിയുന്നുണ്ട് പിന്നെ ടൈലിൻ്റെ പണി അറിയാൻ കഴിയുന്നുണ്ട് പടവ് അറിയാൻ കഴിയുന്നുണ്ട് ഒക്കെ അവർക്ക് ചെയ്യാം തേപ്പ് അറിയാം പക്ഷേ അവർക്ക് മലയാളികൾ കൊടുത്ത ഒരു ഇതിൻ്റെ വാർക്കപ്പണിയാണെങ്കിൽ അവർ അതേ ചെയ്യുന്നുള്ളൂ പക്ഷേ അവർക്ക് ഈ പണികളെല്ലാം അവർക്ക് ചെയ്യാൻ കഴിയും ഒരു വ്യക്തിക്ക് തന്നെ നാലും അഞ്ചും പണികൾ അറിയുന്ന വ്യക്തികളാണ്